എനിക്കങ്ങനെ ഗെയിമിംഗ് ബോക്സ് അങ്ങനെ ഒരു കാര്യമൊന്നുമില്ല പക്ഷേ ഞാൻ വിർച്വൽ റിയാലിറ്റി ഗെയിംസ് കളിച്ചിട്ടുണ്ട് അത് ഒന്ന് കളിച്ചത് വിർച്വൽ റിയാലിറ്റിയല്ല പക്ഷെ ഒരു ത്രീഡി എഫക്റ്റുള്ള ഗെയിംമ് അത് ഞാൻ ഓൺലൈൻ വഴി കമ്പ്യൂട്ടറിൽ കളിച്ചതാണ് പിന്നെ വിർച്വൽ റിയാലിറ്റി പ്രോപ്പർ വിർച്വൽ റിയാലിറ്റി ഗെയിം കളിച്ചത് ഞാൻ ഷോപ്പിംഗ് മോളിൽ പോയപ്പഴാണ് ഇടയ്ക്ക് ഒരു ഷോപ്പിംഗ് മോളിൽ പോയ സമയത്ത് ഈ ഇപ്പോഴത്തെ ഷോപ്പിംഗ് മോളിലെല്ലാം ഒരു പ്രത്യേകം ഏരിയ ഉണ്ട് പ്ലേ ഏരിയ അല്ലെങ്കിൽ ഒരു പേര് വച്ച് അവർ ആ പ്രത്യേക ഷോപ്പിംഗ് മോളിന് ഓരോ ഷോപ്പിംഗ് മോളിനും ഓരോ പേരായിയിരിക്കും അങ്ങനെ ആ ഏരിയയിൽ പോയി പോകുമ്പോഴേക്കും നമുക്കവിടെ ഗെയിംസ് കളിക്കാനും റൈഡ്സ് കയറാനും പല എൻ്റർടൈൻമെൻ്റിന് വേണ്ടിയായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളവിടെ കാണാം അപ്പം അതിലൊന്നാണ് ഈ വെർച്വൽ റിയാലിറ്റി ഗെയിമെന്നു പറയുന്നത് അപ്പോൾ അത് കണ്ടപ്പോഴെനിക്ക് ഒരു കൗതുകം തോന്നി ഇതെങ്ങനെയായിരിക്കും കാരണം എനിക്ക് മുന്നേയുള്ള ആൾ ശരിക്കും അയാൾ ആ ഗെയിമിനോടൊപ്പം അനങ്ങുന്നുണ്ടായിരുന്നു മാറുന്നുണ്ടായിരുന്നു ഒക്കെ കണ്ടപ്പോൾ എനിക്കും അത് ചെയ്യാനായിട്ട് തോന്നി അങ്ങനെയാണ് ഞാൻ ആ ഗെയിമിലേക്ക് കയറിയത് ശരിക്കും അതൊരു വേറിട്ട ഒരു അനുഭവം തന്നെയായിരുന്നു അപ്പോൾ എനിക്ക് ആ വി ആർ ബോക്സ് എൻ്റെ കണ്ണിലേക്ക് വച്ചു തന്നു എന്നിട്ട് ഒരു ഗെയിം സ്റ്റാർട്ടാക്കി ആ ഗെയിമെന്ന് പറയുന്നത് അവിടെയുള്ള ആൾ ഏതൊക്കെ രീതിയിലാണ് ഗെയിം കളിക്കണ്ടേ എന്ന് നമുക്ക് പറഞ്ഞു തരും എന്നിട്ടാണ് നമുക്ക് ഈ എക്വിപ്മെൻ്സ് എല്ലാം തന്നിട്ട് നമ്മൾ ഈ ഗെയിം കളിക്കുന്നത് അപ്പോൾ ഇനി ഞാൻ അന്നേരം കളിച്ച ഗെയിമെന്ന് പറയുന്നത് എൻ്റെ കയ്യിലൊരു വാളു കൊണ്ട് ആ വാളു വച്ച് എൻ്റെ എതിരെ വരുന്ന എൻ്റെ ശത്രുക്കളെ ഞാൻ വെട്ടിയിടണം അപ്പോൾ വാൾ വാൾ വീശി വെട്ടിയിടുന്നതാണ് ഞാൻ ചെയ്യേണ്ടത് എൻ്റെ എതിരാളികളെ ഞാൻ ആക്രമിക്കണം അപ്പോൾ അങ്ങനെ ഞാൻ കളിച്ചു വന്നപ്പോൾഎനിക്ക് ഒരു റൂമിനകത്തേക്ക് എന്നെ കയറ്റി പോയി അപ്പോൾ ആ റൂമിലുള്ള എല്ലാ കാര്യങ്ങളും അതായത് ആ റൂമിലുള്ള നാലു കോർണറും എനിക്ക് കാണാൻ പറ്റുന്ന രീതിയിലായി എനിക്ക് എൻ്റെ കണ്ണിൽ എവിടെ തിരിഞ്ഞാലും എനിക്ക് ആ റൂമാണ് അപ്പോൾ ശരിക്കും ഞാൻ ആ റൂമിലായി എന്ന് തന്നെ എൻ്റെ ബ്രെയിനും ചിന്തിക്കാൻ തുടങ്ങി അപ്പോൾ ഞാനും ആ ഗെയിമിനകത്തേക്ക് പോയി ഒരു ഫീലാണ് എനിക്ക് വിർച്വൽ റിയാലിറ്റി ഗെയിം കളിച്ചപ്പോൾ തോന്നിയത് അപ്പോൾ പേടിയാകുന്നുണ്ട് എക്സൈറ്റ്മെൻ്റ് ആകുന്നുണ്ട് എവിടെ നിന്നായിരിക്കും എൻ്റെ ശത്രുക്കൾ വരുന്നത് ഞാൻ ടെൻഷനാകുന്നുണ്ട് എൻ്റെ കൈ ശരിക്കും വിറയ്ക്കാൻ തുടങ്ങി ഞാൻ വാളു വീശാൻ തുടങ്ങി വാളൊക്കെ വീശുന്നത് പുറമേ നിൽക്കുന്ന ആൾക്കാർക്ക് തമാശയാണ് കാരണം അവർക്ക് അകത്ത് എന്താണ് നടക്കുന്നതെന്ന് അറിയില്ല പക്ഷേ ഞാൻ ശരിക്കും ഗെയിമിനകത്താണ് ഞാൻ എൻ്റെ ശത്രുക്കളെ വെട്ടുവാണ് പക്ഷേ പുറമേ നിന്ന് നോക്കുന്ന ആൾക്കാർക്ക് അതെ എന്താണ് ഒരു ഞാൻ ചുമ്മാതെ ആക്ഷൻ കാണിക്കുക ആണ് അല്ലെങ്കിൽ ചുമ്മാതെ കൈ കൈ വീശുകയാണ് എന്നൊക്കെ തോന്നുകയുള്ളൂ അപ്പോൾ അത് പുറമേ നിൽക്കുന്നവർക്ക് രസകരമായുള്ളൊരു കാഴ്ചയും അകത്ത് നിൽക്കുന്നവർ ശരിക്കും ആ ഗെയിമിൽ നമ്മൾ ജീവിക്കും പോലെ തോന്നും ആ ഒരു റിയാലിറ്റി ലേക്ക് നമ്മളെ ഈ വിർച്വൽ റിയാലിറ്റി എന്ന് പറയുന്ന ടെക്നോളജി അല്ലെങ്കിൽ ആ ഒരു ഗെയിമിങ് സിസ്റ്റം നമ്മളെ കൊണ്ടുപോവുകയാണ് അത് ശരിക്കും എനിക്കൊരു അത്ഭുതമായിട്ടാണ് തോന്നിയത് അങ്ങനെ നമുക്ക് ആ ടൈം എനിക്കൊരു ടെൻ മിനിറ്റ്സ് ആണ് ഗെയിം കളിക്കാനായിട്ട് അവർ തന്ന ടൈമ് ആ ടെൻ മിനിറ്റ്സ് പോയത് പോലും ഞാൻ അറിഞ്ഞില്ല പക്ഷേ വീണ്ടും വീണ്ടും അത് കളിക്കാനുള്ള ത്രില്ല് കൂടുകയാണ് ചെയ്തത് അത് വെട്ടുന്നതും തിരിഞ്ഞ് ആളെ നോക്കുന്നതും എല്ലാം അതൊരു വേറിട്ട അനുഭവം തന്നെ ആയിരുന്നു എനിക്ക്